അങ്ങാടി പയ്യ് ആലിൽ നിൽക്കില്ല എന്നുള്ളൊരു പഴഞ്ചൊല്ലാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് എൻ്റെ മുത്തശ്ശി വീട്ടിലുണ്ടായിരുന്നപ്പോൾ എന്നോട് എപ്പോഴും പറയും ഞാൻ വീട്ടിൽ നിൽക്കാത്തൊരു സ്വഭാവക്കാരനാ വീട്ടിൽ എപ്പോഴും ഉണ്ടാവില്ല വീട്ടിൽ പിന്നെ ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ ഡ്രെസ്സ് മാറുക എന്നുള്ളൊരു സംഭവം മാത്രമാണ് ഞാൻ വീട് എന്ന് ചെറുതായപ്പോൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അച്ചമ്മ എന്നോട് വന്നാൽ പറയും ഈയൊരു പഴഞ്ചൊല്ല് അങ്ങാടി പയ്യ് ആലിൽ നിൽക്കില്ല അത് കേട്ടിട്ടാണ് നമ്മൾ എപ്പോഴും വരുമ്പോൾ ഇനി ഇപ്പോൾ അമ്മേനോടോ അച്ഛനോടോ ഒക്കെ പറയും ഇങ്ങനെ നമ്മളെ ഉദ്ദേശിച്ചിട്ടാവും പറയുന്നുണ്ടാവുക അപ്പോൾ ഈ പിന്നെ പിന്നെയും വേറെ അടി തെറ്റിയാൽ ആനയും വീഴും പിന്നെ അണ്ണാൻ കുഞ്ഞിനും തന്നാലായത് അങ്ങനെ കുറേ പഴഞ്ചൊല്ലുകളാണ് എനിക്ക് ഓർമ്മവരുന്നത് പിന്നെ അട്ടയെ പിടിച്ച് മെത്തയിൽ കിടത്തിയാൽ അത് കിടക്കുമോ അങ്ങനെയും ഉണ്ട് ഒരു പഴഞ്ചൊല്ല് പിന്നെ പിന്നെ ഇപ്പോൾ എന്താ ഉള്ളത് അണ്ണാൻ മൂത്താലും മരം കേറ്റം മറക്കുമോ അങ്ങനെയുണ്ട് ആന കൊടുത്താലും ആശ കൊടുക്കരുത് എന്നുള്ള വേറൊരു പഴഞ്ചൊല്ലുണ്ട് അങ്ങനെ കുറേ പഴഞ്ചൊല്ലുകൾ ഞങ്ങൾ ചെറുതായപ്പോഴൊക്കെ പറഞ്ഞ് പഴഞ്ചൊല്ല് പറഞ്ഞ് കളിക്കുക എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്ന ആന വായിൽ അമ്പഴങ്ങ ഏ അങ്ങനെ കുറേ പഴഞ്ചൊല്ലുകൾ നമ്മളിതിന് മുന്നേയും കേട്ടിട്ടുണ്ട് ആന വാ പൊളിക്കുന്നത് കണ്ടിട്ട് അണ്ണാൻ വാ പൊളിച്ചാൽ കാര്യമില്ലാന്ന് പറഞ്ഞിട്ടുള്ള പഴഞ്ചൊല്ല്